എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യേശുദാസ് സാറിൻ്റെ പാട്ട് കേൾക്കുക എന്നുള്ളത് അതും ലൈവ് ആയി നേരിൽ കാണുക എന്നുള്ളത് അതെനിക്ക് സഫലമായിരിക്കുന്നു അഞ്ച് വർഷം മുന്നെ ആണ് അത് എനിക്ക് സഫലമായത് വളരെ മനോഹരമായ ദൈവീകം എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്ര നല്ല ഗാംഭീര്യം ഏറിയതും അത്ര നല്ല മൃദുലമായതുമായ ശബ്ദം ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് പാട്ട് പാടുവാണേ പാട്ട് വേണമെങ്കിലും പാടാനും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് എനിക്കും പാട്ട് പാടണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായത്